ഇന്ത്യയിൽ നർത്തകരിൽ ബോളിവുഡ് കാര്യമായ സ്വാധീനമുണ്ട് അവരുടെ ശൈലികൾ രൂപപ്പെടുത്തുന്നു കൊറിയോഗ്രാഫി കൂടാതെ ഫാഷൻ തെരഞ്ഞെടുപ്പുകൾ പോലും പല നർത്തകരും ബോളിവുഡ് സിനിമകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ബോളിവുഡ് നൃത്തത്തിൻ്റെ ഘടകങ്ങൾ അവരുടെ പ്രകടനങ്ങളിൽ ഉൾപ്പെടുത്തുന്നു ഇന്ത്യയിൽ ഇഷ്ടപെടുന്ന നിത്യഹരിത നൃത്ത ഗാനങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം കാലാതീതമായ ചില പ്രിയങ്കരങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു ഒന്നാമതായി ഷോലെ എന്ന സിനിമയിലെ മെഹബൂബ മെഹബൂബ തേ സാബ് എന്ന സിനിമയിലെ എക്സ് എക് ദോ തീൻ ഹൗറാ ബ്രിഡ്ജ് എന്ന സിനിമയിലെ മേരാനാം ചിങ്ച്ചിങ്ചോം ആരാധന എന്ന സിനിമയിലെ മേരെ സപ്നോക്കീ റാണി ദിൽ സേ എന്ന സിനിമയിലെ പയ്യാ ചയ്യാ ചയ്യാ ക്ഷമിക്കണം ധൂം സിനിമയിലെ ധൂമച്ചാലേ ഗണ്ടി ക്ഷമിക്കണം ബണ്ടി ഔർ ബബ്ളി എന്ന സിനിമയിലെ ഖജ്റാരേ ദേവദാസ് എന്ന സിനിമയിലെ ഡോലെ ക്ഷമിക്കണം ഡോലാ രെ ഡോലാ ഗോയിലോൺ ഗോലിയോം കി റാസ്സ് ലീല റാം ലീലാ എന്ന സിനിമയിലെ രാഗത സാന്തോൾ യേ ജവാനി ഹേ ദിവാനി എന്ന സിനിമയിലെ ഗാ ഗാഗ്ര ഈ ഗാനങ്ങൾ വർഷങ്ങളായി ജനപ്രിയമായി തുടരുകയും പലപ്പോഴും വിവാഹങ്ങൾ പാർട്ടികൾ സാംസ്കാരിക പരിപാടികൾ എന്നിവയിൽ പ്ലേ ചെയ്യുകയും ചെയ്യുന്നു ഇവിടെ ആളുകൾ അവരുടെ ആകർഷകരമായ ഈണത്തിൽ നൃത്തം ചെയ്യാൻ ഇഷ്ടപെടുന്നു ഇതാണ് ഞാൻ പറഞ്ഞ ബോളിവുഡിലെ സുപ്രധാന എനിക്കറിയാവുന്ന കാര്യങ്ങൾ